ഇന്ന് മലയാള ഭാഷ ഒരു വിധപ്പെട്ട എല്ലാരും ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നാൽ പോലും ഈ മലയാളികളാണ് കൂടുതൽ ചില രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഉള്ളത് എല്ലാ ഏതൊരു രാജ്യം എടുത്ത് നോക്കിയാലും അവിടെ ഒരു മലയാളിയും മലയാള ഭാഷയും അവിടെയുണ്ട് അതുപോലെതന്നെ വ്യാപാരം വാണിജ്യവും ഉൾപ്പടെയുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിലിപ്പോ ഒരുപാട് രീതിയിൽ മലയാള ഭാഷയ്ക്ക് മുൻതൂക്കം നൽകപ്പെടുന്നുണ്ട് വ്യാപാരം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചെറിയ ഷോപ്പിലാണെങ്കിലും എവിടെയാണ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞ് ഇപ്പൊ ഒരു ഉട്സില് കച്ചോടം ചെയ്യുന്ന ആൾക്കാര് ഇപ്പോൾ പോവുന്നാണെങ്കിലും മലയാളത്തിലൂടെ ആണല്ലോ വിളിച്ച് പറയുന്നത് മലയാള ഭാഷക്ക് വല്ലിയൊരു മുൻതൂക്കവാണ് എല്ലാരും ഇപ്പോൾ നൽകി കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തില് ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റ് ഭാഷകളും ഉൾപ്പെടുന്നുണ്ടെങ്കിലും മലയാള ഭാഷക്കാണ് മലയാളികള് കൂടുതലും സ്ഥാനം നൽകുന്നത് അത്പോലെ തന്നെ ഇപ്പോൾ പുറമെ ഒള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാർ പോലും മലയാളം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടും പക്ഷെ അവർക്ക് ഇഷ്ട്ടാണ് മലയാള ഭാഷയെ ഒരുപാട് ഇഷ്ട്ടമാണ്